നമ്മളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അതിൽ ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലീൻ്റെ കൂടെ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം സന്തോഷമായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക അവരുടെ കൂടെ ഓരോ ടൈം ഇരിക്കുക ഓരോ കാര്യങ്ങൾ പറയുക അതുപോലെ യാത്രകൾ പോകുക ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അത് കൂടാതെ നമ്മടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുക അല്ലെങ്കിൽ ഒരുപാട് ദൂരേക്ക് ഉള്ള ട്രാവെല്ലിങ്ങ് ഒക്കെ നമുക്കെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ് കൂടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഉള്ള ഓരോ യാത്രകളും അല്ലെങ്കിൽ ഓരോ മൊമെന്റും നമുക്ക് എന്തായിരിക്കും സ്പെഷ്യൽ ആയിരിക്കും അതുകൂടാതെ തന്നെ അതൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ തരുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അതുപോലുള്ള മൊമെന്റുകൾ ആയിരിക്കും അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആയിരിക്കും കൂടുതലും പലർക്കും നഷ്ടപ്പെടുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അതും ഫാമിലീൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക പക്ഷെ അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ